ആ മലബാർ റെസ്റ്റോറൻ്റല്ലേ ഇത് കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത് ആയിരുന്നു എനിക്ക് ഒരു ഓഗസ്റ്റ് രണ്ടാം തീയ്യതിയിലേക്ക് ഒരു ഫംഗ്ഷൻ നടത്തണമായിരുന്നു അവിടെ നിന്ന് അപ്പോൾ അവിടെ എന്തൊക്കെ ഐറ്റംസുണ്ടാവും അതിൻ്റെ മെനു ഒന്ന് പറഞ്ഞു തരുമോ ആ ആ ഓക്കെ

ആ ആ ആ ആ ഓക്കെ ആ നോൺവെജ്

ആ ആ ഈ പിടിയെന്ന് വച്ചാൽ എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്

ആ ആ

ആ ഓക്കെ ഓക്കെ അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് സ്റ്റേയുണ്ടോ

ആ അത് ഒരൂ അമ്പത് ആൾക്കാരുണ്ടാവും ആ ആ ആ മുന്നേ ബുക്ക് ചെയ്തിടണോ അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് വന്നിട്ട് അന്ന് കിട്ടുമോ ബുക്കിംഗ് അന്ന് വരുന്ന ദിവസം തന്നെ കിട്ടുമോ ആ ആ ഫുഡ് എനിക്ക് സദ്യ ആയിരുന്നു വേണ്ടത് പിന്നെ നോൺവെജുണ്ടെങ്കിൽ പിടി ആയിക്കോട്ടെ പിടിയും ചിക്കൻ കറിയും ആ വേണ്ട വേണ്ട അതുതന്നെ മതി പിന്നെ കൂടുതൽ സദ്യ കഴിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അതുമതി ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റേ ചെയ്യാൻ റെൻ്റ് എങ്ങനെയാണ് അവിടെ വന്നിട്ട് സംസാരിച്ചാൽ മതിയോ ആണോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ വേണ്ടിവരും ആ ഓക്കെ അവിടെ വന്നിട്ട് സംസാരിച്ചാൽ മതിയല്ലെ ബാക്കി ആ ആ ആ ആ ആ ഓക്കെ ആ ആ ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം വിളിക്കാം ഒന്നുകൂടി ആ ഓക്കെ ഓക്കെ